മലയാളികളെ എടുക്കുകയാണെങ്കില് മലയാളികള്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാഷ മലയാളമാണ് കൂടുതല് ആള്ക്കാരും സംസാരിക്കുന്നത് മലയാളമാണെന്ന് വേണമെങ്കില് പറയാന് പറ്റും പിന്നെ വ്യാപാരത്തിലും വാണിജ്യത്തിലും എങ്ങനെയാണ് പ്രാദേശിക അല്ലെ ഈയൊരു പ്രാദേശിക സാമ്പത്തിക വ്യവസ്ഥയില് സമ്പദ്വ്യവസ്ഥയില് മലയാള ഭാഷ ഉപയോഗിക്കപ്പെടുന്നതെങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഇപ്പോള് കടകളിലൊക്കെ ചെന്നാലും ആള്ക്കാര് ഇക് ഇപ്പോള് പുറത്തുനിന്നുള്ള ആള്ക്കാര് ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാലും അവര് സംസാരിക്കുന്നത് അവരുടെ സ്വന്തം അറിയാവുന്ന ഭാഷയിലായിരിക്കുമല്ലോ അപ്പോള് മലയാളം ഒ ഉറപ്പായിട്ടും അവര് മലയാളത്തില് തന്നെയായിരിക്കും സംസാരിക്കുന്നത് പിന്നെ ഈയൊരു പ ഒരു പ്രദേശത്തിന്റെ സാ സമ്പദ്വ്യവസ്ഥയില് മലയാള ഭാഷ എങ്ങനെ സ്വാധീനിക്കുന്നുണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഇപ്പോള് നമ്മളൊരു നമ്മുടെ അടുത്തുള്ള ഒരു കടയില് പോവുകയാണ് അല്ലെ നമ്മുടെ പ്രദേശത്തുള്ള ഒരു കടയില് പോവുകയാണെങ്കില് ഉറപ്പായിട്ടും ആ ഒരു സ്ഥലത്തെ ബാ ആ ഒരു ഭാഷാ ശൈലിയിലേ അവര് സംസാരിക്കുവുള്ളു അപ്പോള് അതിന് അതിന്റേതായ പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാന് പിന്നെ വ്യാപാരം ഒരു നമ്മളിപ്പോള് വേറൊരു സ്ഥലത്ത് ചെന്നാലും അവര്ക്ക് ചിലപ്പോള് കുറേ ബുദ്ധിമുട്ടുകളുണ്ടായേക്കാം മ വേറെ ഭാഷകള് അറിയാത്തതിന്റെ പക്ഷേ കേരളത്തില് തന്നെ ആണെങ്കില് മലയാളം മനസ്സിലാക്കുന്നവരാണ് കൂടുതലും ഭാഷാ ശൈലികളില് വ്യത്യാസമുണ്ടെന്നേ ഉണ്ടാവുകയുള്ളൂ പിന്നെ വാണിജ്യവും ഇതേപോലെതന്നെ ഒരു ഒരേയീ തട്ടില് നമുക്ക് താ തുലനം ചെയ്യാന് പറ്റുന്ന ഒരു കാര്യമായതു കൊണ്ടുതന്നെ നമുക്കറിയാം മലയാള ഭാഷ അത്രയും പ്രാധാന്യം അര്ഹിക്കുന്നൊരു ഭാഷ തന്നെയാണ് അതേ പടി തന്നെ ആള്ക്കാര് കൂടുതലും സംസാരിക്കാന് മലയാളികൾ കൂടുതല് സംസാരിക്കുന്നത് മലയാള ഭാഷയാണെന്ന് നമുക്ക് പറയാന് പറ്റും